കണ്ണൂർ ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ഈ വരുന്ന മാസങ്ങളൊക്കെ തെയ്യത്തിന് വേണ്ടി കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ് കേരളത്തിലെ ഓരോ നാടും നഗരവും എന്ന് തന്നെ പറയാം നമുക്ക് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരേക്കും പല നാടുകളിലായും തെയ്യം ഉത്സവങ്ങളുടെ ഒരു ആഘോഷങ്ങൾ തന്നെയാണ് നടക്കാൻ വരുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ മറ്റ് ജില്ലകളെ വെച്ചു കമ്പയർ ചെയ്യുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയുടെ പ്രധാനമായ ഒരു സ്വകാര്യ അഹങ്കാരമെന്ന് തന്നെ പറയാം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അവിടെ മുത്തപ്പൻ്റെ വാഹനമായിട്ടാണ് പട്ടികളെ കാണുന്നത് അത് അവിടെ ക്ഷേത്രത്തിനുള്ളിലൊക്കെ നമുക്ക് അവിടെ പോയാൽ അവൾ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം പട്ടികളുണ്ടെന്ന് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഡിസംബർ മാസത്തിലാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത് പിന്നെ ഖാദി കൈത്തറിയുടെ ഒരു കലവറ തന്നെയാണ് കണ്ണൂർ ജില്ല എന്ന് നമുക്ക് പറയാം തുണി വ്യവസായത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ല തന്നെ ആണ് നമ്മുടെ കണ്ണൂർ ജില്ല പിന്നെ ദീപാവലി ഹോളി അതൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഹോളി എങ്കിൽ കൂടി നമ്മൾ കേരളത്തിൽ അതായത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ നമ്മൾ ആഘോഷിച്ച് വരുന്നുണ്ട് ഹോളി പ്രധാനമായിട്ടും ഓഫീസുകളിലും കോളേജുകളിലും ഒക്കെയാണ് ഹോളി ആഘോഷിച്ച് വരുന്നത് നിറങ്ങളുടെ ഉത്സവമായ ഹോളിയെ അത്രയും പ്രധാനമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ ആഘോഷിക്കുന്നത് ദീപങ്ങൾ അലങ്കരിച്ച് ദീപാവലിയും ഒക്ടോബർ മാസത്തിൽ നമ്മൾ ആഘോഷിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ടതും പ്രാചീനമായ ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്